എപ്പോഴും നമ്മുടെ പ്രദേശത്തങ്ങനെ കൂടുതലായിട്ടും നമ്മള് ആഘോഷിക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ കൂടുതലായിട്ടും നമ്മള് കണ്ട് വരുന്നത് എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലിപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും വരുന്ന സെലിബ്രേഷൻ ഫങ്ഷൻ പരിപാടികളൊക്കെ നമ്മള് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കൂടുതലായിട്ടും ഓണം വിഷു പിന്നെ പറയുവാണെങ്കിൽ ക്രിസ്മസ് പിന്നെ എന്താ പറയുക ദീപാവലി അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഹോളിയൊക്കെ ആഘോഷിക്കുക അങ്ങനെ ഒരുപാട് എന്താ പറയുക സെലിബ്രേഷൻസൊക്കെ നമ്മളും ആഘോഷിക്കാറുണ്ട് പിന്നെ കൂടുതല് നമുക്കെന്താ പറയുക ഇത്തരത്തിലുള്ള ഓരോ ഡേയ്സ് നമ്മളെന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യാറ് തന്നെയാണ് പതിവ് അങ്ങനെ നമ്മള് സെലിബ്രേറ്റ് ചെയ്യാണ്ടിരിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ മെയ്നായിട്ട് കോഴിക്കോട് ജില്ലയില് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വീടുകളിലും അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഓരോ ദിവസങ്ങളും അതിൻ്റെ സ്പെഷ്യൽ ഡേയ്സൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനും കണ്ടുവന്നിട്ടുള്ളത് എല്ലാ ദിവസം ആഘോഷം എങ്ങനത്തെയൊക്കെ ആഘോഷങ്ങളാണ് ഉള്ളത് അതെല്ലാം അവര് ചെയ്യാറാണ് പതിവ്